കോമിക്ക് വായിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ധാരാളം കോമിക്കുകൾ വായിക്കാറുണ്ടായിരുന്നു ചെറുപ്പ കാലത്ത് അതിൽ പ്രത്യേകമായി പറഞ്ഞാൽ മനോരമയിൽ മനോരമ വീക്കിലിയിൽ വന്നു കൊണ്ടിരുന്ന ബോബനും മോൾ മോളിയും എന്നുള്ള ആ ഒരു കഥാപാത്രങ്ങൾ വരുന്ന സംഭവങ്ങൾ അതു വളരെ നന്നായിട്ട് ടോംസ് വരക്കുകയും അത് അതിനുള്ള ഇത് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നതു കൊണ്ട് അന്നത്തെ അതു വായിക്കാനൊരു താത്പര്യമുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ട് പിള്ളേർക്കൊന്നും ബോബനും മോളിയെല്ലാം പണ്ടൊക്കെ ബാലരമയിൽ വരുന്ന ലുട്ടാപ്പിയും ഇതുമൊക്കെ കുറച്ചു നാൾ എൻ്റെ ആ ചെറുപ്പ കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പോഴും കയ്യിൽ കിട്ടിയാൽ ചിലപ്പം വായിച്ചെന്നിരിക്കും കാരണം അതൊന്നും ഒരിക്കലും ഒരു നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ മനുഷ്യർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നൊരു കാര്യമാണീ ബോബനും മോളിയുടെയൊക്കെയാണെങ്കിലും എത്രയോ എത്രയോ എത്രയോ എപ്പീസോഡുകൾ വന്നിട്ടുണ്ട് അതൊക്കെ ഓരോ പ്രാവശ്യത്തേതും ഓരോ പുതിയ കാര്യങ്ങളെപ്പറ്റി പറയുകയും പുതിയ തമാശകളൊക്കെ ആയതു കൊണ്ട് മനുഷ്യനു ബോറടിക്കുന്നൊരു കാര്യമല്ല അതു ധാരാളമായിട്ടല്ല ഇപ്പോഴും എല്ലാ മനുഷ്യരും കയ്യിൽ കിട്ടിയാൽ വായിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ബാലരമയിലെ കഥാപാത്രങ്ങളും ലുട്ടാപ്പിയും ബോബൻ ഇത് ആരെയൊക്കെയാണ് ഞാനതൊന്നും ഇപ്പം തത്ക്കാലം ഓർക്കുന്നില്ല എങ്കിൽ പോലും വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ധാരാളം ഇപ്പോൾ പിന്നെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കേ ഇവരും വായിക്കും ഈ കോമിക്കുകളൊക്കെ ധാരാളമായിട്ടു വായിക്കുന്നുണ്ടിപ്പം കൂടുതലും ഇംഗ്ലിഷിലൊക്കെ ഒത്തിരി കോമിക്കുകളും ഇറങ്ങുമെന്നുള്ളത് കൊണ്ട് എനിക്കിപ്പം തത്ക്കാലം അതേപ്പറ്റി താത്പര്യമില്ല ഞാനതു കൊണ്ടത് വായിക്കാറില്ല എങ്കിലും കൊച്ചു കുട്ടികൾ ചിലപ്പം അവരുടെ അവരെ ഒന്നു വായിച്ചു കേൾപ്പിക്കാനായിട്ടൊക്കെ ആരെയെങ്കിലും അടുത്തു വന്നാൽ ആ അത് അങ്ങനെ എന്തെങ്കിലും വായിച്ചെന്നുണ്ടെങ്കിലേ ഉള്ളു അത് പക്ഷേ പ്രത്യേകമായിട്ടതിൻ്റെ കഥാപാത്രങ്ങളെയോ എന്തെങ്കിലും ക്യാറക്റ്ററേയൊന്നു ഞാനങ്ങനെ ഓർത്തിരിക്കുന്നില്ല എങ്കിലും കോമിക്കുകൾ വായിക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ ധാരാളമായി കോമിക്കുകൾ വായിച്ചിരുന്നു ചെറുപ്പ കാലത്ത് അതൊക്കെ അന്നത്തെ അതൊക്കെ ഒരു ഇൻട്രസ്റ്റായിരുന്നു ഇപ്പോൾ ആധികാരികമായി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വേറെ ഉള്ളതു കൊണ്ട് ഈ കോമിക്കിലേക്കൊന്നും മനുഷ്യൻ അധികമായിട്ടങ്ങനെ തിരിയുന്നില്ല അതൊക്കെ കൊച്ചു കുട്ടികൾക്കായിട്ടുള്ള ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നതു കൊണ്ട് ഒരു മാതിരി പ്രായമായ ആളുകൾ കോമിക്കിനെ അത്ര അധികം ശ്രദ്ധിക്കാറില്ല കുട്ടികൾ ധാരാളമായി വീട്ടിലുള്ള എൻ്റെ കൊച്ചു കുട്ടികളാണെങ്കിലും കോമിക്കുകളൊക്കെ ധാരാളമായിട്ടു വായിക്കാറുണ്ട് അവർക്കൊക്കെ വായിക്കാൻ ഞാൻ മേടിച്ചു കൊടുക്കാറുമുണ്ട് ധാരാളമായിട്ട് അവർക്കൊക്കെ അതിലൊക്കെ ഇൻറ്ററസ്റ്റുണ്ട് എനിക്കതിൽ താത്പര്യമില്ലാത്തതു കൊണ്ടു മാത്രമതങ്ങനെ പോകുന്നു